മനുഷ്യൻ്റെ വികാരങ്ങൾ ഒരിക്കലും ഒരു സന്തുലിതാവസ്ഥയിൽ ആയിരിക്കില്ല അത് ഓരോ സമയത്തും ഓരോ രിതീയിൽ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഗാനങ്ങൾ ആലപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഗാനങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിലെന്തെങ്കിലും ഒരു വിഷമമോ അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ട് ഉണ്ടായി നമ്മുടെ മനസ്സിനെ അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ഗാനം കേൾക്കുമ്പോൾ ചില സമയത്ത് നമുക്കതൊരു ആശ്വാസകരമാകാം നമുക്കൊരു സമാധാനം അതിൽ നിന്ന് കിട്ടിയേക്കാം ഇപ്പോൾ ആ കേൾക്കുന്ന ഗാനം നമ്മുടെ മനസ്സിപ്പോൾ വിഷമമായിരിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ ഉള്ള വിഷമം തോന്നുന്ന അല്ലെങ്കിൽ ദുഃഖമയമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു മനസ്സും അപ്പോൾ ദുഖത്തിലേക്ക് ചിലപ്പോൾ ആണ്ട് പോകാറുണ്ട് നമ്മളതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ കരഞ്ഞുപോകാറുണ്ട് ചിലസമയത്ത് ഇപ്പോൾ പാട്ട് പാടുന്ന കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെ നല്ലൊരു സന്തോഷത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആ പാട്ട് പാടുന്നതെങ്കിൽ വളരെ നല്ല രീതിയിൽത്തന്നെ നമ്മളത് എന്താണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ആ സന്തോഷം പകർന്നു നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വളരെ ഉർജ്ജസ്വലതയോടെ വളരെ ഉന്മേഷത്തോടെ നമുക്ക് ആ ഗാനം പാടി തീർക്കാനും സാധിക്കുന്ന പല അവസരങ്ങളുമുണ്ട് ആ അല്ലാതെ നമ്മളിപ്പോൾ ദുഃഖത്തിലാണെങ്കിൽ നമ്മൾ ആ പാട്ട് പാടുന്ന സമയത്തായിരുന്നാലും ചില സമയത്ത് നമുക്ക് ദുഃഖംകൊണ്ട് നമുക്ക് അത് മുഴുവിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ആകുമ്പോൾത്തന്നെ നമ്മുടെ ആ ഒരു ദുഃഖം ആ പാട്ടിൽ ഉൾകൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പാട്ടിലൂടെ പ്രകടിപ്പിക്കുന്ന സമയത്ത് കാണികൾക്കും അല്ലെങ്കിൽ ആ പാട്ട് ആസ്വദിക്കുന്നവർക്കും അത് ഒരു ദുഃഖമായും അവർക്കും തോന്നാറുണ്ട് പല ഗായകരും അല്ലെങ്കിൽ ഗായികമാരും അല്ലെങ്കിൽ സാധാരണക്കാരും പാട്ട് പാടുന്ന ആരും ആരും അവരുടെ ഒരു ആ അവർ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ ചിലപ്പോൾ പുറത്തുകൊണ്ടുവരുന്നത് ഈ ഒരു ഗാനത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഗാനം പാടിത്തീരുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിൽ ആ ഒരു വികാരം ഇപ്പോൾ വിഷമമാണെങ്കിൽ ആ വിഷമം മാറുന്നതല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുന്നതും ആ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നതും ഈ ഒരു ഗാനങ്ങൾ ഇങ്ങനെ ആലപിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ആണെങ്കിലിപ്പോൾ ഇങ്ങനെയൊരു ഗാനം പാടുന്നതെങ്കിൽ എനിക്കിപ്പോൾ വിഷമമുള്ള സാഹചര്യത്തിൽ ഞാൻ കൂടുതലും നല്ല ഗാനങ്ങൾ അതായത് ആ ഒരു വിഷമം മാറ്റാൻ തരത്തിലുള്ള ഗാനങ്ങൾ പാടുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് എനിക്കിഷ്ടം പല വ്യക്തികൾക്കും പല രീതിയായിരിക്കും പക്ഷെയെങ്കിൽ ഇപ്പോഴൊരു വിഷമ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു പാട്ട് നല്ല രീതിയിൽ മുഴുമിപ്പിക്കാൻ പറ്റില്ലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ ഞാൻ നല്ല ഉർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ ഞാൻ നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ആ പാട്ട് പാടുന്നതെങ്കിൽ കുറച്ചൂകൂടി നന്നായിട്ട് എനിക്ക് ആ പാട്ട് പാടാനും മട്ടുള്ളവരിലേക്ക് എൻ്റെ ആ ഒരു ആ വികാരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരാനും എനിക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം